ഞങ്ങൾ ഈ പ്രദേശത്ത് പ്രധാനമായും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടാണെങ്കിലും അല്ലെങ്കില് ഇച്ചിരി ദൂരെയാണെങ്കിലും അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് അവരുടെ ആരാധനാലയങ്ങളായ അമ്പലങ്ങളുണ്ട് അതിന് പ്രധാനപ്പെട്ട കാളിമല പിന്നെ ഒത്തിരി ശിവൻ്റെ ക്ഷേത്രങ്ങള് കൃഷ്ണൻ്റെ ക്ഷേത്രങ്ങള് അങ്ങനെ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങള് അടുത്തടുത്ത് അവർക്കുള്ള ക്ഷേത്രങ്ങള് ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരുപാടുണ്ട് മുസ്ലീംസിനാണെങ്കിലും മുസ്ലീംസിൻ്റെതായ ആരാധനാലയങ്ങളുണ്ട് ക്രിസ്ത്യൻസിന് പല വിഭാഗക്കാരുണ്ട് നാടാഴ്സ് ക്രിസ്ത്യൻ നാടാർ അങ്ങനെയുള്ളവരുണ്ട് ക്രിസ്ത്യൻസ് അവര് സി എസ് സി പള്ളിയിൽ പോകുന്നവരുണ്ട് സീറോ മലബാറുണ്ട് സീറോ മലങ്കരയുണ്ട് അങ്ങനെ നമ്മള് പിന്നെ ക്രിസ്ത്യനില് തന്നെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് പിന്നെ ഹിന്ദുക്കളിലാണെകിലും നാടാഴ്സുണ്ട് ഹിന്ദു ഈഴവരുണ്ട് അങ്ങനെ ബ്രാമിൺസുണ്ട് അങ്ങനെ പല പല പല ജാതിയാൽ ഞങ്ങളുടെ പ്രദേശം അങ്ങനെല്ലാരും ഒത്തുകൂടി ഒരുമയോടെ ജീവിക്കുന്ന പ്രദേശമാണ് പിന്നെ ഇവിടെ എന്ത് കാര്യത്തിനാണെങ്കിലും ഞങ്ങളുടെ ഈ പ്രദേശത്ത് എന്ത് കാര്യത്തിനാണെങ്കിലും ജാതി പറഞ്ഞുള്ള ഒരു പ്രശ്നങ്ങള് ഞങ്ങളുടെ ഈ പ്രദേശത്തില്ല എല്ലാ പ്രശ്നത്തിലും എന്തൊരു പ്രശ്നം ഏതൊരു പ്രശ്നം ഏത് ജാതിക്കാര് അല്ലെങ്കിൽ ഏത് മത വിശ്വാസികള് ചെയ്താലും അതിനെ നല്ല കാര്യമാണെങ്കിൽ പിന്തുണയ്ക്കാനും അതിന് തെറ്റായ കാര്യമാണെങ്കിൽ അതിന് ഈ നമ്മുടെ ഇടയില് വേണ്ട എന്ന് പറയാൻ ഉദാഹരണത്തിനായിട്ട് ഇപ്പം മയക്ക് മരുന്നിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ഏരിയയില് ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ഉള്ളൊരു കുട്ടി അല്ലെങ്കില് ഒരു മുതിർന്ന ഒരു യുവാക്കള് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കണ്ട് വന്ന ഒരാളാണെങ്കിൽ അവര് ഇന്ന എൻ്റെ ആ ജാതിയില് അല്ലെ എൻ്റെ മതത്തിൽപ്പെട്ട ആളാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞു മൂടി വെക്കുന്നതല്ല എല്ലാവരും കൂടെ ഇടപെട്ട് അതിന് എന്ത് ചെയ്യാം അത് ഏത് മത വിശ്വാസത്തിലാണെങ്കിലും ഇപ്പോ പള്ളിയില് ഇപ്പോ ഞങ്ങള് നമ്മുടെ ഇവിടെ ഈ പ്രദേശത്ത് പള്ളിയുണ്ട് അമ്പലമുണ്ട് അപ്പോൾ അവിടുത്തെ പൂജാരീനെ കൊണ്ടുവരാനോ അല്ലേൽ പള്ളീലച്ചന്മാര് വന്ന് സംസാരിക്കാനങ്ങനെ എല്ലാവരും ഇടപെട്ട് ആണ് ഇവിടുത്ത ഒരു പ്രശ്നങ്ങള് പരിഹരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു കാര്യമെന്ന് വച്ചാൽ നമ്മുടെ ഇപ്പോൾ ഇവിടൊരാള് ഒരു ഒരാള് മരിച്ചു അപ്പം പള്ളീലെ ആളാണ് മരിച്ചത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസത്തിൽപ്പെട്ട ഒരാളാണ് മരിച്ചത് അവര് മാത്രവല്ല നമ്മളിപ്പം നമ്മുടെ ഇതില് പെട്ട ഒരാള് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിലൊരാളാണ് മരിക്കുന്നതെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും മുസ്ലീംസ് ആണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഇനി ആരാണെങ്കിലും ആ ഈ ഏരിയയിലുള്ള എല്ലാവരും തന്നെ വരാനും അവരുടെ മൃത സംസ്കാര ചടങ്ങിന് പങ്കെടുക്കാനും എല്ലാവരും അതിന് സന്നദ്ധരാണ് അല്ലാതെ ഇന്ന മതത്തിൽപ്പെട്ട ആളല്ലേ മരിച്ചത് അപ്പം ഇന്നയാള് പോയാൽ മതി അങ്ങനെയല്ല മതം ഏതായാലും മനുഷ്യര് എല്ലാവരും ഒരുപോലെയാണ് നമ്മുടെ ഈ പ്രദേശത്ത് ജീവിക്കുന്നത് അവർക്ക് ആ അവരിപ്പം എൻ്റെ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ കൂടെയേ ഞങ്ങള് നടക്കുകയുള്ളു അല്ലേൽ എൻ്റെ മതത്തിൽപ്പെട്ട ആളുടെ കൂട്ടത്തിലെ ഞങ്ങളിപ്പം സ്കൂളിലാണേലും കോളേജിലാണേലും അവരുടെ കൂടെയേ നടക്കുകയുള്ളു അവരുടെ കൂടെയേ എൻ്റെ മോളെ ഇരുത്താവുള്ളു അല്ലെങ്കിൽ എൻ്റെ മോനെ ഇരുത്താവുള്ളു ആ അവരുടെ അവര് ചെയ്യുന്നതാണ് ശരി അല്ലെങ്കിൽ അവരുടെ അവര് ചെയ്യുന്ന കാര്യങ്ങളാണ് നല്ലത് അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഈ ഈ ഈയൊരു പ്രദേശത്ത് ഇല്ല എല്ലാവരും ഐക്യമായി എല്ലാ എല്ലാ മത വിഭാഗങ്ങളില് പെട്ടവരും ഐക്യ ഒരേ കണ്ണോടെ എല്ലാവരും ഒരേ കണ്ണോടെ കണ്ട് എല്ലാ മത മതക്കാരും ഒരുമിച്ച് നമ്മുടെ പള്ളിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു പൊതു പരിപാടികളിലാണെങ്കിലും എല്ലാ മതക്കാരും പങ്കെടുത്ത് പങ്കെടുത്താണ് ജീവിക്കുന്നത്